ആ ടീച്ചർ ഞാൻ ഹൃതികയുടെ പേരൻറ് ആണ് ആ ഞാൻ മോളുടെ പെർഫോമൻസിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അവൾക്ക് ഡാൻസിനോട് കൊച്ചിലേ തൊട്ട് വലിയ ഇഷ്ടമാണ് അങ്ങനെ ആണെങ്കിൽ ടീച്ചറുടെ അടുത്ത് ഡാൻസ് പഠിക്കാൻ ചേർത്താൽ അവൾ എങ്ങനെയാണ് നന്നായിട്ടാണോ പെർഫോമൻസ് ചെയ്യുന്നത്

ആ ആ ആണോ വീട്ടിൽ വന്നാൽ അവിടെ പഠിപ്പിച്ച് ഡാൻസ് ഒക്കെ ഞങ്ങളെ കളിച്ച് കാണിക്കാറുണ്ട് ചിലപ്പോൾ ഒക്കെ ക്ഷീണിച്ച് വരുമ്പോൾ മടി കാണിക്കും ആ ടീച്ചറേ എപ്പോഴും പറയും സ്കൂളിൽ മാത്രമല്ല വലിയ സ്റ്റേജിലൊക്കെ ഡാൻസ് കളിച്ച് ഫസ്റ്റ് പ്രൈസ് മേടിക്കണമെന്ന് കഴിഞ്ഞ സ്കൂൾ ആനുവൽ ഡേയ്ക്ക് അവളുടെ ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ട് ടീച്ചറിനെ ടീച്ചറിനെയൊക്കെ ക പറഞ്ഞ് വലിയ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ സ്കൂളിൽ കലോത്സവത്തിനൊക്കെ മത്സരിക്കും എന്ന് ആ ഡാൻസിനോട് അവൾ താല്പര്യം കുഞ്ഞിലേ തൊട്ട് നമുക്ക് മനസ്സിലായതാണ് ആ അവൾ എന്തെങ്കിലും പാട്ട് ഇട്ടാൽ തന്നെ കേട്ടിട്ട് കൈയ്യും കാലും ഇട്ട് അടിക്കാനും തുടങ്ങി പിന്നീട് തന്നെ തന്നെ ഓരോന്ന് കണ്ട് കണ്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി അങ്ങനെ ക്ലാസ്സിൽ ചേർത്തത് ആ ത ഓക്കെ താങ്ക് യു ടീച്ചർ അവൾ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്യ ചെയ്യുന്നോ എന്ന് ഞാൻ ശ്രദ്ധിച്ചോളാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചറിനെ ഞാൻ കോൺടാക്ട് ചെയ്യാം ചെയ്താൽ മതിയല്ലോ ആ ഓക്കെ